ആ ഹലോ ഞാനാണങ്കിൽ അവടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി ഓഡർ ചെയ്തിട്ടുണ്ടാരുന്നു ആ അതെ മലബാർ റെസ്റ്റോറൻറ്റിൽന്ന് നിന്ന് പക്ഷേ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞാൻ ആ ഓർഡറ് ചെയ്ത സമയത്ത് ഞാനെൻ്റെ അമ്മാവൻ്റെ വീട്ടിലാരുന്നു പക്ഷേ ഇപ്പം എനിക്കെൻ്റെ ഞാനെൻ്റെ ഞാൻ നിൽക്കുന്ന സ്ഥലം മാറി അപ്പം ആ ഡെലിവറി നിങ്ങൾ നൽകേണ്ടത് അമ്മാവൻ്റെ വീട് കല്ലറയിലായിരുന്നു പക്ഷേ ഞാനിപ്പം നിൽക്കുന്നത് ഏറ്റുമാനൂരാണ് അപ്പം എൻ്റെ ആ ഒരു ദേ ആ ബിരിയാണി എനിക്ക് ഏറ്റുമാനൂരോട്ട് എത്തിക്കുവായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു കാരണം ഞാനത് ഓഡർ ചെയ്ത സമയത്ത് കല്ലറയിലെ അഡ്രസ്സായിരുന്നു നൽകിയിരുന്നത് ഇപ്പം ഞാൻ ഏറ്റുമാനൂരോട്ട് വന്നു അതുകൊണ്ടെനിക്കിനി ഏറ്റുമാനൂരിൽ അവ ആ ബിരിയാണി ലഭ്യമാക്കി തരണം ആ അതെ അത് തന്നെ അങ്ങനെ തന്നെ എനിക്ക് ചെയ്തു തരാമോ

ഐറ്റം ഒന്നും മാറണ്ട കറി എല്ലാം അതു തന്നെ എല്ലാം അതു തന്നെ ചെയ്തു തന്നാൽ മതി സ്ഥലം മാത്രം ഒന്നു മാറ്റി തന്നാമതി നിങ്ങൾ പൊറപ്പെട്ടാരുന്നോ ഇല്ലല്ലോ ആ ഓക്കേ പൊറപ്പെട്ടിട്ടില്ല ആ അതുതന്നെ ആ അപ്പം എനിക്ക് കല്ലറയിലെ വിലാസം മാറ്റി ഇവിടെ ഏറ്റുമാനൂർ അതെ ആ വിലാസം ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്തേക്കാം ആ ഞാൻ കല്ലറയിലെ വിലാസം ഇട്ട ആ നമ്പറിൽ നിന്ന് തന്നെ ഞാൻ ഏറ്റൂമാനൂരെ വിലാസം ഇട്ടേക്കാം അതെ ആ ജംഗ്ഷന്ൻ്റെ ആ ജംഗ്ഷനി തന്നെ അത് തന്നെ ഞാൻ ആ വിലാസം നിങ്ങൾക്ക് വാട്സപ്പ് വഴി കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ സെൻഡ് ചെയ്തേക്കാം ഓക്കേ എനിക്കെന്നിട്ട് അവിടെ ആ ചിക്കൻ ബിരിയാണി ലഭ്യമാക്കി തരണം ഓക്കേ ശരി എന്നാൽ വളരെ നന്ദി